പെട്രോളിന്റെ വില സാരമായിത്തന്നെ എല്ലാവരേയും ബാധിക്കുന്നൊരു കാര്യമാണ് സാധാരണ വില വർധനവിനെപ്പോൽ അല്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിലിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരാൾക്ക് പത്തോ മുന്നൂറോ ഇല്ലെങ്കിൽ അഞ്ഞൂറോ രൂപയൊക്കെയേ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നുള്ളൂ അത് അവരെ വണ്ടിക്കൂലി തന്നെ അതിൽ പകുതിയും പോകും ഇപ്പോൾ രണ്ട് ലിറ്റർ എണ്ണയടിക്കാൻ ദിവസം രണ്ട് ലിറ്റർ എണ്ണയടിക്കണമെങ്കിൽത്തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപേന്റെ അടുത്തു വരും അത് അവരെ കൂലിയിൽനിന്നു പോകുമ്പോൾ അത് ഒരു കുടുംബത്തിൽ നന്നായി ബാധിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നവർക്കാണെങ്കിൽ മറ്റ് ടാക്സി ഓടിക്കുന്നവർക്കാണെങ്കിലും അവർക്ക് കിട്ടുന്ന വാടാകേന്റെ പകുതി തന്നെ അവർക്ക് അവരുടെ വാഹനത്തിന്റെ ഇന്ധനച്ചിലവിനായി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അത് അവരെ കുടുംബത്തിനേയും അത് സാരമായി വയ്ക്കും പിന്നെ പരിസ്ഥിയിനെ അത് ദോഷകരമായിത്തന്നെയാണ് ബാധിക്കുന്നത് പക്ഷേ ആ പരിസ്ഥിയിനെത്തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പലകാര്യങ്ങളും ഇന്ന് നടക്കാതെ പോകും